ഹലോ സിറ്റി ഹോസ്പിറ്റലാണ് ആരാണ് ഓക്കെ എന്ത് പേഷ്യന്റാണ്

തലവേദന താങ്കൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നോ

താങ്കളുടെ പേരും ഏജും അഡ്രസ്സും ഒന്ന് പറയുമോ

യദു കൃഷ്ണ പതിനേഴ് വയസ്സ്

കാട്ടിക്കുളത്ത് എവിടെയാണ് സാർ അപ്പം നമ്മൾ ഇപ്പോൾ വല്ല ആംബുലൻസ് വിടണമെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ വേണ്ടേ എവിടെ പോയാൽ മതിയല്ലേ ഓക്കെ കാറ് ലൈക് ഹോസ്പിറ്റലിൽ ഇതിനുമുമ്പ് പോയിട്ടുണ്ടായോ ഒരാഴ്ച്ചക്കിടയ്ക്ക് അപ്പോൾ

ആൾക്കാർ കൂടിയ സ്ഥലത്തോട്ട് പോകുമായിരുന്നോ

ആത് എങ്ങനെയാണ് മാസ്ക് വച്ചിട്ടാണോ പോയത് അല്ല കൊറോണ സമയമാണല്ലോ അപ്പം അതുകൊണ്ടായിരുന്നു ചോദിച്ചത് അപ്പം കൊറോണ ആയിരിക്കും താങ്കൾ എന്തു ചെയ്യണം അടുത്ത അടുത്തുള്ള ഹെൽത്ത് ഇതില്ലേ ചെക്കപ്പ് സ്ഥലമുള്ള അവിടെ ചെന്ന് കോറോണയ്ക്ക് ടെസ്റ്റ് ചെയ്യുക ആ മാസ്ക് വച്ചിട്ട് പോണം പിന്നെ ഈ പാരസെറ്റമോളില്ലേ

പാരസെറ്റമോളില്ലേ അത് കഴിച്ചുകൊണ്ടിരിക്കുക ഇടക്കിടയ്ക്ക് കഴിച്ചോ പിന്നെ ചെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിക്കുക ഓക്കെ ഇല്ലെങ്കിൽ നാളെ ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഹോസ്പിറ്റലിലോട്ട് വന്നാൽ മതി ആ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ അല്ല പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ട് വന്നേക്കുക കേട്ടോ ഇല്ലെങ്കിൽ വിളിച്ചാൽ മതി ഞങ്ങൾ ആംബുലൻസ് ആയക്കാം ഓക്കെ ശരി